ചിത്ര രചന പെൻസിലു കൊണ്ട് പെൻസിലുകൊണ്ട് ഞാന് വരയ്ക്കാറൊക്കെയുണ്ട് പെൻസില് ചിത്ര രചനാ എന്ന് വെച്ചാൽ പെൻസില് കൊണ്ടാണല്ലോ വരയ്ക്കുന്നത്

അതുപോലെ ഒരു ഒരു ഒരുപാട് പെൻസിലുകൾ ഉണ്ട് പലതരത്തിലുള്ള ഡാർക്ക് ഡാർക്ക് കളറാണ് ലൈറ്റ് കളർ പെൻസിലുണ്ട് അതുകൊണ്ടൊക്കെ ചിത്രം വരയ്ക്കാറുണ്ട് എന്തു കൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ സാധാരണ പെൻസിലുകൊണ്ട് ഉപയോഗിച്ചാൽ നമുക്കെന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നാലും നമുക്ക് മായ്ച്ചു കളയാ കളയാലോ അതുകൊണ്ട് തന്നെ പെൻസിലുകൊണ്ടാണ് കുടുതലും വരയ്കാറ് പിന്നെ പെൻസിലോണ്ട് വരച്ച ശേഷവും അതിന് മുകളില് സ്കെച്ചുകള് കൊണ്ടും വരയ്ക്കും ഒക്കെ ഒരു ലക്ഷ്യാണല്ലോ